കേരളത്തിലെ പ്രധാന വിനോദകേന്ദ്രങ്ങൾ രാത്രികാലങ്ങളിൽ ഉണർന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരിയാണ് അതായത് തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഒരു രാത്രികാല ജീവിതം എന്നുള്ളൊരു എന്താണ് പറയുക ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നിലവിൽ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കൂടുതൽ എന്താണ് പറയുക പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കെല്ലാം കൂടുതൽ എളുപ്പം ഉള്ളൊരു സ്ഥലമായത് കൊണ്ടാണ് എന്ന് തോന്നുന്നു തിരുവന്തനപുരത്താണ് രാത്രി ജീവിതം ഇപ്പോൾ വിനോദ കേന്ദ്രങ്ങളായിട്ട് നിലനിൽക്കുന്നത് അവിടെയാണ് ബാക്കിയവിടങ്ങളിലും അങ്ങനെ ഒരു വിനോദകേന്ദ്രം എന്നുള്ള തരത്തിൽ കൊച്ചി പോലെയുള്ള എന്താണ് പറയുക സിറ്റികളിലൊക്കെ രാത്രി കാല ജീവിതം ഉണ്ടെന്ന് കേട്ടിട്ടണ്ട് പക്ഷേ ഇത് സർക്കാർ വഴി ഇടപെട്ടിട്ടുള്ളൊരു രാത്രിയിലുള്ള വിനോദസഞ്ചാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് തന്നെയാണ് അതിൻ്റെ പല തരത്തിലുള്ള പാചക രീതികൾ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പല വിധത്തിലൊള്ള പരിപാടികൾ ഇപ്പോൾ കലാപരമായിട്ടുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ തു തുറന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന രാത്രികാല ജീവിതങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്